കോഴിക്കോട് ജില്ലയിലെ അതായത് ശ്രദ്ധേയമായ ലാൻഡ് മാർക്കുകൾ ചരിത്രപരമായ സ്ഥലങ്ങളും ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇവിടെയുണ്ട് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമുക്ക് അതായത് നമുക്ക് എവിടെ അതായത് നമ്മൾ എവിടെ പോയി നോക്കിയിട്ടുണ്ടങ്കിലും നമുക്കൊരു അതായത് കാണാനുള്ളത് അതായത് പിന്നെ വിനോദസഞ്ചാരികൾക്ക് മാത്രമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിലുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ക്ഷേത്രങ്ങളായാലും ഒരുപാടുണ്ട് കോട്ടകൾ അതുപോലെ മ്യൂസിയങ്ങൾ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രകൃതി സവിശേഷതകളായിട്ട് നമുക്ക് ഒരുപാടുണ്ട് പിന്നെ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് ബീച്ചാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയെന്ന് നമുക്ക് വേണമെങ്കിൽ തുറന്നു പറയാം പിന്നെന്താ വച്ചിട്ടുണ്ടെങ്കിൽ ഈ അത് എല്ലാവർക്കും ആയിട്ട് തുറന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് ക്ഷേത്രങ്ങളൊന്നും ഒരിക്കലും നമുക്ക് എല്ലാവർക്കും ആയിട്ട് തുറന്നിട്ടുണ്ടന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷേത്രങ്ങളിലൊക്കെ കൂടുതലും ഹിന്ദുക്കൾ ഒക്കെയാണ് പോവുക കാരണമെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മുസ്ലിം പള്ളി ആണെങ്കിൽ നമ്മളിപ്പോൾ ഹിന്ദുക്കളും പോവില്ല ക്രിസ്ത്യാനികളും പോകില്ല അപ്പോൾ അതുപോലെ തന്നെയാണല്ലോ ക്ഷേത്രങ്ങളിലും അപ്പോൾ അതുകൊണ്ടുതന്നെ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ഒഴിച്ച് ബാക്കിയെല്ലാം എല്ലാവർക്കും വേണ്ടിയും തുറന്നിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ടിപ്പുവിൻറെ കോട്ടയുണ്ട് ഒരുണ്ണി കാവ് ക്ഷേത്രമുണ്ട് മുച്ചുന്തി പള്ളിയുണ്ട് അങ്ങനെ എല്ലാ പള്ളികളും ഉണ്ട് അതുകൊണ്ട് നമുക്ക് അതായത് നമുക്ക് കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മുടെ കോഴിക്കോട് ജില്ലയില്